കന്നുകാലികൾ പറയുമ്പഴ് ചെറുപ്പത്തിലേ ഉള്ള ഒർമ്മകൾ മാത്രമേ ഉള്ളു അച്ചമ്മേച്ച അമ്മമ്മയൊക്കെ ചെയ്ത് കണ്ടുള്ള കാര്യങ്ങള് വലിപ്പത്തിലേ അങ്ങനെ കന്ന് കാലികളേ ഒന്നും ഇപ്പം വളർത്തുന്നില്ല അപ്പം ആ ആ ട സമയത്തൊക്കെ അവര് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കില് കുഞ്ഞുങ്ങൾ ജനിച്ച ഉടനെ അവരുടെ മേലുണ്ടാകുന്ന ആ സ്രവങ്ങളും രക്തം കാര്യങ്ങളെല്ലാം ഒര് തുണിയില് ഒപ്പി എടുത്ത് അതിന് നല്ല വൃത്തിയാക്കി സൂക്ഷിക്കും പിന്നെ അതിൻ്റെ ശ്വാസോച്ഛ്വാസമൊക്കെ നോക്കും ശ്രദ്ധിക്കുക പിന്നെ പൊക്കിൾക്കൊടിയൊക്കെ വളരെ വൃത്തിയായിട്ട് സൂക്ഷിക്കുക അതിൽ എന്തെങ്കിലുമൊക്കെ ഇതൊണ്ടെങ്കില് മുറിവുകളൊ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അവിടെ മെഡിസിനൊക്കെ നക്കെ പുരട്ടി കൊടുക്കാം അങ്ങനെ ഒക്കെ ചെയ്യും പിന്നേ കുഞ്ഞുങ്ങൾ ജനിച്ച് ഒര് ആറ് മണിക്കൂറിനുള്ളിൽ തന്നെ അവയ്ക്ക് നമ്മള് മനുഷ്യരേപ്പോലെതന്നെ പാലെന്ന് പറയുന്നത് വളരെ പ്രധാനവാണവർക്കും അപ്പം ആറ് മണിക്കൂറിനുള്ളിൽ തന്നെ ആ കന്നിപ്പാല് കൊടുക്കുന്നത് വളരെ അവരുടെ ആരോഗ്യത്തിന് വളർച്ചക്കാവശ്യമായ കാര്യങ്ങൾക്കെല്ലാം ഉള്ള പോഷക ഘടകങ്ങൾ അടങ്ങിയിട്ടുള്ളതാണ് ആ പാലെന്ന് പറയുന്നത് അപ്പം അത് വളരെ നിർബന്ധവും വളരെ ആവശ്യവുമുള്ള ഒരു കാര്യമാണ് ജനിച്ച് ഒരു ആറ് മണിക്കൂറിനുള്ളിൽ തന്നെ അവർക്ക് അത് കൊടുക്കേണ്ടതാണ് അതെന്ന് വെച്ചിട്ടുണ്ടെങ്കില് അവരുടെ ഭാരത്തിന് അനുസരിച്ച് ശരീര ശരീരഭാരമേകദേശം നമ്മൾ ആ സമയത്ത് ഭാരമൊന്നും അളന്ന് നോക്കുകയില്ല പക്ഷേ നമുക്ക് ഏകദേശം എത്രയുണ്ട് ആവറേജ് ഭാരവാണോ അങ്ങനെ ഒക്കെ അറിയാൻ പറ്റും അല്ലാ അപ്പം അതിൻ്റെ ആ അതിനൻസരിച്ച് വേണം പാല് കൊടുക്കാൻ എന്ന് പറയുന്നത് കേൾക്കാം അത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് ചിലപ്പം തനിയേ കുടിക്കാൻ പറ്റണം എന്നില്ല അപ്പം നമ്മൾ അതൊരു നമ്മുടെ നിപ്പിൾ ബോട്ടിലിലോ അങ്ങനെ ഒക്കെ ആക്കിയിട്ട് അതിന് വെച്ച് കൊടുക്കുവാണെങ്കിൽ വളരെ നല്ലതാണ് കാരണം ആ പാല് നിർബന്ധമായിട്ടും പശുക്കിടാവിൻ്റെ അകത്ത് എത്തിയിരിക്കണം എന്നാണ് പറയുന്നത് പിന്നതുവല്ല പശുക്കിടാക്കളെല്ലാം അമ്മയുടെ അടുത്ത് നിന്ന് പരമാവധി മാറ്റി കിടത്തണം എന്നുള്ളതാണ് ഒരു വേറൊര് കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മയുടെ അടുത്ത് മാറ്റണ്ടതായ ആവശ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ജനിച്ചാലുടനെ എന്തുട്ടാണ് പ്രതിരോധശേഷി കുറവായിരിക്കും അപ്പം അവിടുത്തെ ആ ശ്രവങ്ങളും കാര്യങ്ങളും പിന്നെ മൂത്രവും ചാണകവും ഒക്കെ ആ ആ മൂലയ് അമ്മയുടെ അടുത്ത് ആ മുലയിൽ നിന്നൊക്കെ അവര് ശരീരത്തിലേക്ക് അണുക്കൾ പ്രവേശിക്കാനായിട്ട് അതൊക്കെ ഉള്ളത് കൊണ്ട് അണുക്കൾ പ്രവേശിക്കാനുള്ള എന്ത്രാണ് ചാൻസസ് ഉണ്ടാകും അപ്പം നമ്മൾ അവയെ പരമാവധി മറ്റൊര് സ്ഥലത്ത് വൃത്തിയുള്ള ഒരു സ്ഥലത്ത് ഒരു ഉണങ്ങിയ സ്ഥലത്ത് വൈക്കോല് വൈക്കോല് കൊണ്ടോ അല്ലെങ്കിൽ പുല്ല് കൊണ്ടോ മേഞ്ഞ ഒര് മെത്തേപോലെ ഒര് വിരിപ്പ് പോലായിട്ടൊക്കെ അവർക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ട് അവിടെ കിടത്തുവാണെങ്കില് വളരെ ഒരു നല്ലയൊര് കാര്യമാണ് അപ്പം അവർക്ക് പ്രത്യേകിച്ച് രോഗാണുക്കളേയൊന്നും പേടിക്കാതെ അവിടെ നിൽക്കാനായിട്ട് പറ്റും പിന്നെ ഇതൊക്കെ നമ്മള് കുഞ്ഞ് ജനിച്ച് അന്നത്തെ ദിവസം തന്നെ ഇതൊക്കെ ശ്രദ്ധിക്കണം കാരണം കുഞ്ഞ് മനുഷ്യരേപ്പോലെ തന്നെയാണ് അവരുടെ കുഞ്ഞ് മൻ പശുക്കൾക്ക് കിടാങ്ങളുടെ കുഞ്ഞുങ്ങൾ എന്നൊക്കെ പറയുന്നത് അപ്പം അവയേ അത്രയും ഒര് കുഞ്ഞ് ജനിച്ചു കഴിയുമ്പം എങ്ങനെയാണ് നമ്മൾ പരിപാലിക്കുന്നത് അതുപോലെ അത്രയും നല്ലത് പോലെ കെയർ ചെയ്ത് വേണം അവരേ നോക്കാനായിട്ട് പിന്നെ എന്ന് പറയാനുണ്ടെങ്കിൽ ഒര് മൂന്നാഴ്ച്ചവരെ നമ്മള് പാല് മാത്രമെ കൊടുത്താൽ മതി പക്ഷേ നമ്മള് ഇപ്പം അവയ് അവർക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലുതായി കഴിയുമ്പം പുല്ല് അങ്ങനത്തെ ഇതൊക്കെ ചവച്ച് തിന്നാൻ ആയിട്ടാണ് പോകുക അവര് അപ്പം അവയ്ക്ക് ആ ആ ഒര് സ്വഭാവം ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ജനിച്ച ഒരു മൂന്ന് ദിവസം കഴിയുമ്പം തന്നെ നമ്മള് ചെറിയചെറിയ കുട്ടി പുല്ലുകളോ അല്ലെങ്കില് തവിട് പിന്നെ മറ്റേ കടലപ്പിണ്ണാക്കോ അങ്ങനത്തെ പിണ്ണാക്ക് ഐറ്റംസ് എന്തേലുമൊക്കെ ചേർത്ത് മറ്റേ കഞ്ഞിവെള്ളത്തിലോ അല്ലെങ്കിൽ വെള്ളത്തിലോക്കെ ഇതാക്കി നമ്മുടെ കയ്യിൽ പാത്രത്തിലക്കെ ചിലപ്പോൾ കുടിക്കാനായിട്ട് അവർക്ക് പറ്റില്ല മൂന്ന് ദിവസത്തിനുള്ളിൽ എന്നൊക്കെ പറയുമ്പം അപ്പം അവർ കയ്യിലാണെങ്കിൽപ്പോലും അവര് നാവ്കൊണ്ട് ചിലപ്പോൾ നക്കുകയോ അല്ലെങ്കില് അങ്ങനെ ചവയ്ക്കുന്നില്ല എന്നാലും അവയ്ക്കത് കഴിക്കാനുള്ള ഒരു എന്തരാണ് ഒര് പ്രാക്റ്റീസ് കിട്ടും അതിലൂടെ അപ്പം അതിനൊക്കെ വേണ്ടിയിട്ട് മൂന്ന് ദിവസം കഴിയുമ്പം തന്നെ നമ്മള് അങ്ങനെ കൊടുക്കുവാണെങ്കില് അവയ്ക്ക് ആ സ്വഭാവം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളത് ചെയ്യുന്നത് വളരെ നല്ലതാണ് മൂന്നാഴ്ച്ചവരെ ശരിക്ക് അമ്മേൻ്റെ പാല് മാത്രം കുടിച്ച് വളരുകയാണ് ഏറ്റവും നല്ലത് കാരണം അവയ്ക്ക് ഭാവിയിലേക് വളർച്ചക്കാവിശ്യമായിട്ടുള്ള പോഷക ഘടകങ്ങളെല്ലാം ധാരാളമായിട്ട് അടങ്ങിയിരിക്കുന്നത് അമ്മയുടെ പാലിലാണ് അപ്പം നമുക്ക് അത് കൊടുക്കുന്നതാണ് ഏറ്റവും ഉത്തമം അതെ കൂടാതെ നമുക്ക് ഇത് ഭാവീലേക്കവർക്ക് സ്വന്തമായിട്ട് ഭക്ഷണം കഴിക്കാനുള്ള ഒരു പ്രാക്റ്റീസിന് വേണ്ടിയിട്ട് ഇതൊക്കെ ചെയ്യുന്നത് നല്ലതാണ് പിന്നെ നമ്മള് ചെറിയ കഞ്ഞിവെള്ളമൊക്കെ നമ്മള് കൊടുക്കും ചെറിയ ചോറും പറ്റ് ഒക്കെ ഇട്ട് കഞ്ഞിവെള്ളമൊക്കെ കൊടുക്കുന്നത് അത് നല്ലതാണ് പക്ഷേ പാലിനോളം വരില്ലിതൊന്നും പിന്നെ ഈ മൂന്ന് ജനിച്ച് വീണ് ഒര് മൂന്നാഴ്ച്ചയൊക്കെ അവയെ കുളിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല ഈ സമയങ്ങളൊന്നും നമ്മള് അവയെ തുടച്ചു വൃത്തിയാക്കുന്നുണ്ട് പിന്നെ അങ്ങനെ കുളിപ്പിക്കുക വെള്ളത്തില് കുളിപ്പിക്കേണ്ടാവശ്യമൊന്നുമില്ല പക്ഷേ അവർക്ക് കുടിക്കാൻ ധാരാളം വെള്ളം കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് കാരണം അവരുടെ ശരീരത്തില് നമ്മളുടെ ഒക്കെ പോലെ തന്നെ ധാരാളം ജലത്തിൻ്റെ ആവശ്യകത അവരുടെ ശരീരത്തിൽ ഉണ്ട് അപ്പം അതൊക്കെ ചെയ്യുക പിന്നെ അവരുടെ വ്യായാമം അതായത് നമ്മള് കുട്ടികൾക്കായാലും കയ്യും കാലും എടുത്ത് പൊക്കണത് ഒക്കെ പോലെ അവയ്ക്കു വ്യായാമത്തിൻ്റെ ആവിശ്യമുണ്ട് അപ്പം നമ്മള് അവരെ എന്തിരാണ് ചെറിയ അത്യാവശ്യം ഇടമുള്ള സ്ഥലങ്ങളിൽ ഒന്ന് വിടുക അപ്പം അവയ്ക്കോടി നടക്കാനും അവിടെ പുല്ല് ഒക്കെ കാണുമ്പം അതൊന്ന് കൊത്തിയെട്ക്കാനൊക്ക നോക്കും അപ്പം അങ്ങനെ ഓടി നടക്കുവാനൊക്കെ അവർക്ക് അത് അവര് ശരീരത്തിൻ്റെ വളർച്ചയെ വളരെ സഹായകരമാകും എന്നാണ്